ഇൻഡ്യയില് ഏറ്റവും ജനപ്രിയമായ കായിക വിനോദങ്ങൾ ഫുട് ബോള് ക്രിക്കറ്റ് തുടങ്ങിയവയാണ് ഫുട് ബോള് ആണ് പ്രധാനമായിട്ടും ഫുട് ബോള് ക്രിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഡ്യയില് ഏറ്റവും ജനപ്രിയമായ കായികയിനങ്ങൾ അതുപോലെ തന്നെ വോളീ ബോള് ബാറ്റ്മിൻറ്റൺ തുടങ്ങിയ കാര്യങ്ങളും ഇന്ത്യയിലൊത്തിരി കാണാന് സാധിക്കും എന്നാൽ അതിലൊക്കെ പ്രധാനമായിട്ട് ഇരിക്കുന്നത് ക്രിക്കറ്റും ഫുട്ബോളും ആണ് രാജ്യത്തെ പ്രശസ്തരായ ചില കായികതാരങ്ങളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സച്ചിൻ തെന്തുൽക്കർ സച്ചിൻ തെന്തുൽക്കർ വളരെ പ്രശസ്തനായൊരു കായിക താരമാണ് അതുപോലെ തന്നെ ധോണി പിന്നെ സുനിൽ ചേദ്രി തുടങ്ങിയവരെല്ലാം ഇന്ത്യയിലെ പ്രധാന കായിക താരങ്ങളാണ് അപ്പോള് ഇവരുടെ പിന്നെ വിരാട് കോഹ്ലി പിന്നെ പി റ്റി ഉഷ ഇവരെല്ലാം കേരളത്തിലെ പ്രധാന കായിക താരങ്ങളാണ് സച്ചിൻ തെന്തുൽക്കറാണേ ക്രിക്കറ്റ് കളിക്കുന്ന മഹത് വ്യക്തിയാണ് വിരാട് കോഹിലി ക്രിക്കറ്റ് കളിക്കുന്ന മഹത് വ്യക്തിയാണ് അതു പോലെതന്നെ സുനിൽ ചേദ്രി ഫുട് ബോള് കളിക്കുന്നൊരു മഹത് വ്യക്തിയാണ് അതുപോലെ പി റ്റി ഉഷാ അത്ലറ്റിക്സ് മേഖലകളില് ഒരു പ്രധാനിയാണ് ഇന്ത്യയില് സ്പോർട്സ് എന്നു പറയുന്നത് വളരെ വളരേ വലിയൊരു സംഭവം തന്നെയാണ്